ഹലോ ഗൈഡ് ആണോ ടൂറിസ്റ്റ് ഗൈഡ് ആണോ ആ ഞാന് എനിക്ക് ഡെൽഹിയിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണമായിരുന്നു അപ്പോള് അതിനെപ്പറ്റിയൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത് അപ്പോള് ഇപ്പോള് എവിടെയാണുള്ളത് അപ്പോള് ഇത് എങ്ങനെയാണ് ഇതിന്റെ ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ് അതെ അതെ എനിക്ക് ആ സ്ഥലങ്ങളെല്ലാം കഴിയുന്നിടത്തോളം പിന്നെ കുറച്ച് ദിവസം കൂടുതൽ എടുത്താലും കുഴപ്പമില്ല എനിക്ക് എല്ലായിടത്തും നിന്ന് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ താമസിച്ച് ശരിക്കും കണ്ട് കേട്ട് പോരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോള് നമുക്കിവിടെ ഇപ്പോള് എത്ര ദിവസത്തേക്ക് ഞാൻ ഇവിടെനിന്ന് ലീവ് എടുത്ത് എത്ര ദിവസത്തേക്ക് ലീവ് എടുത്ത് വന്നാല് നമുക്ക് എല്ലാമൊന്ന് കാണാൻ പറ്റും അപ്പോള് അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ നമുക്ക് ചെയ്തുതരുമോ അതോ അവിടെ വന്നിട്ട് നമ്മളെ ഗൈഡ് അവിടെ എല്ലാം കാണിക്കുകയേയുള്ളോ അപ്പോള് നമുക്ക് ഈ ഭാഷയൊന്നും അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പം എനിക്ക് അവിടെനിന്ന് നമ്മുടെ മറ്റേ താജ് മഹാളും എല്ലാമൊന്ന് കാണാൻ പോകണമെന്നുണ്ട് അപ്പോള് അവിടത്തേക്കൊക്കെ വരുമോ അപ്പോള് ഈ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക ഇവിടെയെല്ലാം പോകാന് പറ്റുമോ അല്ല എന്നാല് പിന്നെ ഞാൻ ഇവിടെനിന്ന് മൂന്ന് ദിവസത്തെ ലീവ് എടുത്ത് വന്നാല് മതിയോ ഇവിടെനിന്ന് അവിടെ വരെ വരണമെങ്കില്ത്തന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസമെടുക്കും മൂന്ന് ദിവസം എടുത്താല് പോരായിരിക്കുമല്ലോ ഇവിടെനിന്ന് അങ്ങോട്ട് വരുന്നത് രണ്ടും രണ്ടും നാലും മൂന്ന് ഏഴായി അവിടെത്തന്നെ എത്ര ദിവസം വേണ്ടി വരും ആ അവിടെ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ ആ ശരി ശരി അപ്പോള് എൻ്റെ ഞാന് ഈ നമ്പര് അവിടെ വന്നിട്ട് വിളിക്കേണമോ അതോ നേരത്തെ ബുക്ക് ബുക്ക് ചെയ്യേണമോ

ശരി ശരി ശരി ശരി ശരി ശരി ശരി ഞാൻ രണ്ട് ഇവിടെനിന്ന് തിരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വിളിച്ചുപറഞ്ഞാല് മതിയല്ലോ അല്ലേ ഓക്കെ ഓക്കെ ഓ ഓക്കെ അപ്പം ഞാനീ നമ്പറില് നിന്ന് വിളിച്ച് രണ്ടു ദിവസം മുമ്പ് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ